കാര്യമായ കേസുകളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും എൻ്റെ ജീവിതാനുഭവങ്ങളും വന്നുപെട്ടിട്ടുള്ള വിഷമങ്ങളും സന്തോഷങ്ങളുമൊക്കെ കഥാരൂപത്തിലാക്കി ഞാൻ ഒന്ന് രണ്ട് ബുക്കുകൾ നിറയെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ആലോചിച്ച് നോക്കിയതിൽ കൂടുതലും നോൺ ഫിക്ഷൻ ആണ് പിന്നെ കുറച്ച് സങ്കല്പങ്ങൾ കൂടി ചേർത്തെങ്കിലേ കഥ കഥയാക്കാൻ പറ്റൂ എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ കണ്ട് മനസിലാക്കിയിട്ടുള്ളതും എനിക്ക് വ്യക്തമായിട്ടും അറിയാവുന്ന കാര്യങ്ങളെയാണ് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ നാലുവരി പാട്ടുകളും അല്ലെങ്കിൽ എട്ടുവരി പാട്ടുകളുമൊക്കെ എഴുതി ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതോ എവിടെയെങ്കിലും എന്നെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ വിശ്വസനീയമായിട്ട് പറഞ്ഞ് കേട്ടതോ ആണ് കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വളരെ വ്യക്തമാണ് നോൺ ഫിക്ഷൻ ആണ് ഇഷ്ടപ്പെടുന്നതെന്ന് അത് ഫിക്ഷൻ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഫിക്ഷനോട് ഫിക്ഷനോട് അങ്ങനെ വെറുപ്പായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു കാരണവശാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാത്ത അറിയാത്ത കുറെ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം വരുമോ എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ എഴുതുന്നതും മറ്റുമൊക്കെ എനിക്കൊരു കൗൺസിലിങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന വിഷമങ്ങൾ ചേർത്ത് ഒരു ചെറുകഥയോ അപ്പോൾ ചെറുകഥ പോലെ ഞാൻ ചെറുകഥാ എഴുത്തുകാരനൊന്നും അല്ലല്ലോ എഴുതി വെച്ച് അതിനകത്ത് എന്തോ ഒരു ആശ്വാസം തോന്നാറുണ്ട് സന്തോഷം വായിച്ച് നോക്കുമ്പം സന്തോഷം തോന്നാറുണ്ട് എൻ്റെ ചെറുകഥയുടെ ചിലരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അഭിനന്ദിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് ഒരു സന്തോഷം ഓഹ് വെരി ഗുഡ്ഡ് എന്ന് നമ്മളെ അഭിനന്ദിച്ചൊരു ഇപ്പോൾ ഒരു പോസിറ്റിവ് തിങ്കിങ് പ്രകാരമാണ് ഇഷ്ടം അതേസമയം ഫിക്ഷനെ കുറിച്ച് എഴുതിയിട്ട് വായിച്ച് കഴിഞ്ഞാൽ അത് എന്തുവാ അതിനകത്ത് വരാവുന്ന യാഥാർഥ്യ സന്തോഷം വരാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതിപ്പോൾ ഒരു ഒരിക്കൽ ഒരാൾ ചോദിച്ചിട്ട് പോലും ഉണ്ട് ഈ കഥ എന്തെങ്കിലും ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ വെറും സല അടിക്കാൻ പറഞ്ഞതാണോ എന്ന് ഞാൻ പറഞ്ഞു അല്ല സല അടിക്കാൻ പറഞ്ഞതല്ല ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് എന്നാണ് പറഞ്ഞത് എന്തായാലും നോൺ ഫിക്ഷനോടാണ് എനിക്ക് ഇഷ്ടം പിന്നെ എഴുത്തുകാരുടെ കാര്യം പറഞ്ഞാൽ ഈ സമയങ്ങളിൽ ഇപ്പോൾ പല വർഷങ്ങളായിട്ട് പുസ്തകങ്ങളെന്ന് പറയുന്നത് വായിക്കുന്നത് കുറവാണ് ഇപ്പോൾ കൂടുതൽ വായിക്കുന്നത് വാരികകൾ മാസികകൾ പേപ്പറുകൾ പീരിയോഡിക്കൽസ് പിന്നെ നമ്മുടെ വാട്ട്സാപ്പിനും ഇതേ മറ്റുമൊക്കെ വരുന്ന ഫെയിസ്ബുക്കിലൊക്കെ വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് കൂടുതൽ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരനെന്ന് പറയുന്നതിൽ കൂടി ഇഷ്ടപ്പെട്ടിരുന്ന കലാകാരൻ എഴുത്തുകാരനെന്ന് പറയുന്നതായിരിക്കും ശരി ഞങ്ങളുടെ കുട്ടികാലത്തായിരുന്നു മുട്ടത്തുവർക്കിയും കാന വിജയും പൊൻകുന്നം വർക്കിയും പിന്നെ വയലാറും തകഴി ശിവശങ്കരപ്പിള്ളയും മറ്റുമൊക്കെ ആ സമയത്തുള്ള എഴുത്തുകാരാണ് അതിനകത്ത് എനിക്ക് ഏവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ മുട്ടത്തുവർക്കിയാണ് അതുകഴിഞ്ഞാ കാന വിജയ് മുട്ടത്തുവർക്കിയെ ഇഷ്ടപ്പെടാൻ കാരണം യാഥാർഥ്യങ്ങളുമായിട്ട് വളരെ ബന്ധമുള്ള രീതിയിലാണ് അത് എഴുതിയിരുന്നത് പിന്നെ സിമ്പിൾ ലാങ്വേജിലാണ് ദൈനംദിന ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് എക്സാംബിള് പറഞ്ഞാൽ പഴയ മാതാവേ എന്നുള്ള ചില വിളികളൊക്കെ അതിനകത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇറ്റ്സ് മൈ ഓൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിരുന്നത് പിന്നെ അയാൾ എങ്ങനെ വന്നാലും കഥ എഴുതുന്നത് നല്ല ഫ്ലൂവൻറ്റ് ആയിട്ട് എഴുതി യാഥാർഥ്യമാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പുള്ളിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആണ് എഴുതുന്നതെന്ന് തന്നെ തോന്നും കഥയുടെ ആ ഫ്ലോ കണ്ടാൽ പിന്നെ കൂടുതൽ മനസിലാകാത്ത വാക്കങ്ങളോ വാക്യങ്ങളോ പ്രയോഗങ്ങളോ ഒന്നും പുള്ളിയുടെ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല വളരെ സിമ്പിൾ ആർക്കു വേണമെങ്കിലും വായിക്കാം മനസ്സിലാക്കാം പിന്നെ അശ്ലീല കാര്യങ്ങൾ ഇവരുടെ പുസ്തകങ്ങളിൽ വളരെ കുറവാണ് പ്രേമം മുതലായവയൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് അശ്ലീലമായ രീതിയിലോ അല്ലെങ്കിൽ മത ചിന്ത പരത്തക്കവണ്ണം ഉള്ള എഴുത്തും പിഴവുകളൊന്നും ഇവരുടെ ആരുടെയും പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് ധൈര്യപ്പെട്ട് എനിക്ക് വീട്ടിലിരുന്ന് ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിന് എടുത്ത് പുസ്തകങ്ങൾ വായിക്കുമ്പം എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല നീ ഇതൊക്കെയാണോ വായിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ ശാസിക്കേണ്ട കാര്യമുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം മുറ്റത്തുവർക്കിയും എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാർ